എടാ ഇപ്പോൾ അല്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ സർ നെയിം മാറ്റണമല്ലോ അങ്ങനെയെങ്കിൽ പാസ്പോർട്ടിലത് അപ്ഡേറ്റ് ചെയ്യണ്ടതായി വരില്ലേ കാരണം ഞാനെൻ്റെ ഹസ്ബന്റിന്റെ കൂടെ ദുബായിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് പാസ്പോർട്ട് ഓൾറെഡി ഉണ്ട് പക്ഷെ അതിനെൻ്റെ സമയം പഴയതല്ലേ പിന്നെ എനിക്ക് പേര് മാറ്റണമെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമെന്ന് അറിയത്തില്ല എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പേര് മാറ്റണമെങ്കിൽ ഗസെറ്റഡ് ഓഫീസിൽ പരസ്യം ചെയ്യണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഗസെറ്റഡ് ഓഫീസിൽ ഹാജരാക്കേണ്ടതായി വരും എൻ്റെ തിരിച്ചറിയൽ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വേണമായിരിക്കും അല്ലേ അതുപോലെ തന്നെ മ്യാരേജ് സർട്ടിഫിക്കറ്റും വേണമായിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ്ങിന് കൊടുക്കണം അങ്ങനെയെങ്കില് ഞാൻ പേര് മാറ്റുന്ന പരിപാടി പെട്ടെന്ന് തന്നെ നടത്തികിട്ടണം എങ്കിൽ മാത്രമല്ലേ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു നീ എന്തായാലും ഇതൊക്കെ തിരക്കിയിട്ട് എന്നോടൊന്ന് പറയണേ